തെയ്യം തിറ കൂടിയാട്ടം മോഹിനിയാട്ടം കഥകളി എന്നിവയാണ് എനിക്കറിയാവുന്ന കേവലം ചില തദ്ദേശീയ കലാരൂപങ്ങൾ ഇവയ്ക്കൊക്കെ അതിൻറ്റേതായ പ്രത്യേകതകൾ ഉള്ളത് ഇവരെ വ്യത്യസ്തമാക്കുന്നത് ഇവരുടെ വസ്ത്രാലങ്കാര രീതിയും ചമയവും അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ചുവടുകളുമൊക്കെയാണ് ഓരോന്നിനും ഓരോ കഥകളായിരിക്കും പറയാനുണ്ടാകുന്നത് ഓട്ടം തുള്ളൽ ചാക്യാർകൂത്ത് മുതലായ കലാരൂപങ്ങളും ഇവയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് കഥകളി കഥകളി രാമനാട്ടത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നതാണെങ്കിൽ ഓരോ കലകൾക്കും ഇതുപോലെയൊരു പാരമ്പര്യം പറയാനുണ്ടാകും ഓരോ കലയും അഭ്യാസം അഭ്യസിക്കുകയും അതിനെ അതിൻ്റെ കഴിവുകൾ ആർജ്ജിക്കുകയും ചെയ്യുകാന്നുള്ളത് കലാകാരന് വളരെ പ്രധാനമായ ഒരു കാര്യമാണ് ഈ കല കലവഴി ആർജ്ജിച്ച ആ കഴിവ് ആൾക്കാരിലേക്ക് ആസ്വാദകരിലേക്ക് ആ കഥ എത്തിക്കാൻ കഴിയുമ്പോഴാണ് ഒരു കലാകാരൻ്റെ വിജയം എന്നു പറയുന്നത്